നമ്മുടെ ഇടയിൽ നല്ല പെരുമാറ്റമുള്ള ആളുകളൂണ്ട് ഇല്ലാത്തവരുമുണ്ട് വിദ്യാഭ്യാസ സമ്പന്നമായ ഒരു വ്യക്തി നല്ലപോലെ പെരുമാറുമെന്ന നമുക്ക് പറയാൻ പറ്റില്ല കാരണം കാ ഇപ്പോൾ നമ്മൾ കാണുന്നില്ലേ പല തരത്തിലുള്ള കേസുകൾ വിദ്യാഭ്യാസത്തോടു കൂടി പോയത് കൊണ്ട് നമുക്ക് പോയതും നമക്കറിയാം അങ്ങനെ ഇന്നത്തെ ചെയ്യുന്നത് അവർ ഇങ്ങനെ ചെയ്യുന്നത് ഒരു വിദ്യാഭ്യാസം ഇല്ലാതിരുന്നിട്ടും നന്നായി പെരുമാറാൻ കുറെ ആളുകളെ നമുക്കറിയാം കാരണം മാതാപിതാക്കളിൽ നിന്നും കിട്ടുന്നതാണ് നമ്മുടെ മക്കൾക്ക് നല്ല ശീലം അതുകൊണ്ട് നമ്മളുടെ കാരണോന്മാരിൽ നിന്നും നമ്മുടെ മക്കളെ നല്ല ഇതായി പഠിപ്പിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്